ഹലോ ഇത് മലബാർ ഹോട്ടൽ അല്ലേ ഞാൻ അവിടെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ചു പേർക്കുള്ള ഭക്ഷണമാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡെലിവറി ചെയ്യാമെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ചു പേർക്ക് ഒരുമിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കിഴിവ് കൂപ്പൺ തരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പം എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇരുപത്തഞ്ചു പേർക്ക് ഒരുമിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഇത്ര ശതമാനം കുറച്ച് കൊടുക്കുന്നുണ്ട് എന്നു പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തേ പറയേണ്ടതാണ് അപ്പോൾ കിഴിവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് എമൗണ്ട് ഞാൻ ചെയ്താൽ പേയ് ചെയ്താൽ മതിയല്ലോ അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ആതിന് അത് കിഴിവ് കൂപ്പൺ എത്ര ശതമാനമാണ് കിഴിവെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണൊന്ന് വിളിച്ചത്